ഹലോ ആ പറഞ്ഞോളു അതെയതെയതെ ആ ഓക്കെ ഓക്കെ പേരെന്താണ് സാർ ആ പറഞ്ഞോളു ആ ഓക്കെ ആ ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടീട്ട് വിളിച്ചതാണല്ലേ ഓക്കെ നാല് ടു വീലേഴ്സ്ന്ന് ഉദ്ദേശിക്കണത് സ്കൂട്ടിയാണോ ഉദ്ദേശിക്കുന്നത് അതോ ബൈക്കാണോ ഉദ്ദേശിക്കുന്നത്

ഓക്കെ ഞാൻ എൻ്റെ ഞങ്ങളുടെ കയ്യിലുള്ള ഇത് കുറച്ച് ഇത് പറഞ്ഞ് തരാം ഒന്ന് ഹിമാലയനൊണ്ട് പിന്നൊന്ന് ഡുക്കിൻ്റെ പുതിയ അഡ്വെഞ്ചറസ് മോഡലില്ലേ അത് ഇണ്ട് പിന്നെ കുറച്ച് അതിൻ്റെ ലോ ലെവലിലേക്ക് വരുമ്പോൾ ഹോണറ്റ് ഏക്സ്പൾസ് ഇതൊക്കെയാണ് കളക്ഷൻസ് ആ ഹിമാലയൻ്റെ പഴയ മോഡലാണ്ള്ളത് പുതിയ മോഡല് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല നമ്മക്ക് പെർ ഡേ ഇതിന് ഹിമാലയത്തിന് വരുന്നത് മൂന്നായിരം ആണ് പേർ ഡേ ആ ആ ട്വന്റി ഫോർ അവേഴ്സ് ട്വന്റി ഫോർ അവേഴ്സ് ട്വന്റി ഫോർ അവേഴ്സ് ഹെൽമറ്റ് ഇണ്ട് നമ്മൾ ഒരു ഹെൽമറ്റ് പ്രോവൈഡ് ചെയ്യും വണ്ടീടൊപ്പം നിങ്ങടെ പുറകിലിരിക്കുന്ന കോപാസ്സെൻജറിന് നിങ്ങളൊരു ഹെൽമറ്റ് അറേഞ്ച് ചെയ്യണം മേടിക്കണം മേടിക്കണം അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ട്ടോ എക്സ്ട്രാ ക്യാഷ് തരുവാണെങ്കിൽ ഹെൽമറ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വണ്ടിയെടുക്കുന്ന ടൈമില് ഒരു എന്താ പറയാ ഒരു ടു ആൻഡ് ഹാഫ് ലിറ്ററെ അത്രേ ഉണ്ടാവുള്ളു വണ്ടിയിൽ ഓ സിമ്പിൾ ആയിട്ട് ഒരു ഒരു പത്തൻപ്ത് കിലോമീറ്ററ് ഓടാനുള്ളത് എന്തായാലും ഉണ്ടാകും അത് അല്ല നിങ്ങളെങ്ങനെ ആയാലും എടുക്കുന്നതിൻ്റെ മുന്നെ ഒരു ഒരു എന്താ പറയാ ഒരു ടെൻ ഡേയ്സ് ആണെങ്കിലും മിനിമം മിനിമം ഒരു ഇത്ര ഇത് പറയണം മാക്സിമം ആ മാക്സിമം ഒരു അല്ല മാക്സിമം നമുക്കൊരു ടു ഡേയ്സ് വരെ എക്സ്റ്റെന്റ്റ് ചെയ്യാൻ പറ്റും അത്രേ പറ്റുവൊള്ളു ഇല്ല എത്ര ദിവസത്തേക്ക് വേണന്ന് കറക്റ്റ് പറയുവാണെങ്കിൽ കുഴപ്പമില്ല ആ പറഞ്ഞതിൽ കാട്ടിൽ നമുക്കൊരു രണ്ട് ഡേ രണ്ട് ഡേയ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ എക്സ്റ്റെൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ പറഞ്ഞ ഡേറ്റിൽ തന്നെ തരണ്ടി വരും അതിന് നമുക്കൊരു പോളിസി ഉണ്ട് ആ പോളിസി നിങ്ങൾക്ക് നമ്മൾ ഇതിൻ്റെ മുന്നേ കൺഫോമാണെങ്കിൽ നമ്മൾ പറഞ്ഞ് തരാം ആ പോളിസിൻ്റെ അനുസരിച്ചേ ഇതിൽ ചെയ്യാൻ പറ്റുവൊള്ളു കാരണം നമ്മൾ നിങ്ങൾ ഇപ്പം വൺ മന്ത് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ മറ്റുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് ഇതാക്കേണ്ടി വരുമല്ലോ അപ്പം ചെറിയൊരു പോളിസി നിങ്ങൾക്ക് അത് പറഞ്ഞ് തരാം ഡീറ്റൈൽ ആയിട്ട് പറയാം പിന്നെ ഓ ഓക്കെ ഓക്കെ ഞാൻ നമ്പർ വേണമെങ്കിൽ അയച്ച് തരാം അപ്പം ഡീറ്റെയിൽസ് അയച്ച് അവിടേക്ക് വന്നാൽ മതി ഓ മതി മതി ഓക്കെ ഓക്കെ ഓക്കെ